ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയാണ് ഹിന്ദി പക്ഷേ എന്നാലും എല്ലാവർക്കും തന്നെ ഹിന്ദി ഇപ്പം വളരെ സുപരിചിതമല്ല നമ്മുടെ മാതൃഭാഷയായ മലയാളം തന്നെയാണ് എല്ലാവർക്കും അറിയുക ഇന്ത്യയിലെ ഒട്ടുമിക്ക ആൾക്കാരും ഭൂരിഭാഗം ആൾക്കാർ ഇന്ന് സംസാരിക്കും സംസാരിക്കാൻ അറിയുന്നത് ഹിന്ദിയാണ് കുഴപ്പമില്ലാത്ത പക്ഷേ ഹിന്ദിയും മലയാളവും തമ്മിൽ ഏറെക്കുറേ ഒരു സാമ്യമുള്ളൊരു ഭാഷയാണ് രണ്ടും വർത്തമാനം പറയാനും എല്ലാം ഒരു സാമ്യമുണ്ട് എവിടെയൊക്കെയോ എഴുതാനായാലും പറയാനായാലും വായിക്കാനായാലും എന്തൊക്കെയോ ഒരു സാമ്യം ഉള്ളൊരു ഭാഷയാണ് ഹിന്ദിയും മലയാളവും മാതൃഭാഷയായ മലയാളം എന്താ എല്ലാവർക്കും മലയാളമാണ് ഏറ്റവും പാടും വായിക്കാനും എഴുതാനും പറയാനുമുള്ള ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു ഭാഷയാണ് മലയാളം